സമൂഹ മാധ്യമത്തില് ഞാന് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് പ്രധാനമായിട്ട് ഞാന് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമെന്നു പറഞ്ഞാല് ഫേസ്ബുക്ക് വാട്സാപ്പ് പ്ലാറ്റ്ഫോമുകളിലാണ് പ്ലാറ്റ്ഫോമുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമുകളില് പ്രധാനമായിട്ടും എൻ്റെ സുഹൃത്തുക്കള് അല്ലെങ്കില് വേണ്ടപ്പെട്ട ആൾക്കാര് അങ്ങനെയുള്ളവര് മരിച്ചുകഴിഞ്ഞാല് അവരുടെ ഫോട്ടോയും മരണ വിവരങ്ങളും തുടർന്നുള്ള അതിൻ്റെചടങ്ങുകളും ഞാന് ഈ പ്ലാറ്റ്ഫോമുകളില് പോസ്റ്റ് ചെയ്യാറുണ്ട് പിന്നീട് ഞാന് കൂടുതല് ചെയ്യാറുള്ള മറ്റുള്ളവർക്കു പ്രചോദനമാകുന്ന ചിത്രങ്ങള് പോസ്റ്റ് ചെയ്യാറുണ്ട് പ്രധാനമായിട്ടും കാർഷി മേഖലയില് നല്ല തോട്ടങ്ങള് ഞാൻ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന മികച്ച കൃഷിയിടങ്ങള് ഞാന് പോസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ കൃഷിയിടങ്ങളിലെ ഫോട്ടോകള് പോസ്റ്റ് ചെയ്യുന്നതിനൊപ്പം അതു കൃഷി ചെയ്ത ആളിൻ്റെയും ഫോട്ടോയും അവരുടെ വിവരണങ്ങള് ഒക്കെ ഈ കൂട്ടത്തില് പോസ്റ്റ് ചെയ്യാറുണ്ട് ആ അത് അങ്ങനെ ചെയ്യുന്നതിനു പ്രധാനമായിട്ടുള്ള ഉദ്ദേശ്യമെന്നു പറഞ്ഞുകഴിഞ്ഞാല് ഇന്നു ജനം ഏറ്റവും കൂടുതല് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് സമൂഹ മാധ്യമങ്ങളിലാണ് ഒരു പക്ഷേ ഇന്ന് ആളുകള് ഏറ്റവും കൂടുതല് സമയം ചെലവഴിക്കുന്നത് ഭൂരിഭാഗം ആളുകളും കാരണമെന്നുവച്ചെന്നാല് ജനങ്ങള് വളരെ ആധുനികമായ സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സമൂഹ മാധ്യമത്തില് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിന്നിപ്പോള് പ്രായഭേദമന്യേ പലരും സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കൊച്ചു കുട്ടികൾ മുതല് പ്രായമായവര് വരെ ശരിക്കും പറഞ്ഞെന്നാല് ആ ഇപ്പോള് ഈ എന്നാ ടെക്നോളജി ഉപയോഗിക്കുന്ന കാര്യത്തില് പിന്നെ കുട്ടികള് മുതല് പ്രായമായവര് വരെ വളരെ താൽല്പര്യമാണു കാണിക്കുന്നതവിടുന്ന് അവര് ഈ പ്ലാറ്റ്ഫോമുകൾ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൻ്റെയും വാട്സാപ്പിൻ്റെയും ഒക്കെ പ്ലാറ്റ്ഫോമുകളില് കയറുകയും വിവരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടവിടുന്ന് അവർക്കു പ്രചോദനമാവുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടുകൂടിയാണ് ഞാന് ഈ പിന്നെ ഫോട്ടോകള് പോസ്റ്റ് ചെയ്യുന്നത് ഈ ഫോട്ടോൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ആൾക്കാരുടെ ഒരു പ്രതികരണം മനസ്സിലാക്കുവാനായിട്ടു സാധിക്കും എന്നുള്ളൊരു മെച്ചമുണ്ട് അതിന്റെ പോരായ്മുകള് ചിലരെങ്കിലും കമെൻറ് ചെയ്യാറുണ്ട് അതിലെ നല്ല നിർദ്ദേശങ്ങള് എനിക്കു പ്രചോദനമാകാറുണ്ട് അപ്പോൾ അതിപ്പോള് തീർച്ചയായിട്ടു പിന്നീടും എൻ്റെ പ്രവൃത്തികളെ കൂടുതല് പ്രവൃത്തികൾക്കു കൂടുതല് കരുത്തു പകരുന്നതിനു ഞാൻ സൂചിപ്പിക്കുകുണ്ടായി ഞാൻ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന നല്ല കൃഷിയിടങ്ങള് നല്ല വിളകള് അതു പ്രധാനമായിട്ടും ചെയ്യുന്നുണ്ട് എന്നുള്ള ഞാൻ സൂചിപ്പിച്ചു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ആ ഇന്നു കാർഷിക മേഖലയിൽ നിന്ന് ആൾക്കാര് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഞാനിപ്പോഴധിവസിക്കുന്ന കേരളത്തില് ആ ഒരു ദിവസം ഒരു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ലോറിസമരം ഉണ്ടായെന്നാല് കേരളം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പട്ടിണിയിലാകും എന്നുള്ള ഒരു അവസ്ഥ നിലവിലുണ്ട് കാരണം ഇവിടേക്കാവശ്യമായുള്ള പച്ചക്കറികളും മറ്റു മാംസ മത്സ്യ മാംസാദികളും ഉൽപാദിപ്പിക്കുകയും അതു ശേഖരിക്കുകയും അതു ലഭ്യമാവുകയും ചെയ്യുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവിടുന്ന് ആ ഒരു സാഹചര്യത്തിനു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണു ഞാൻ അതുകൊണ്ടാണു കാർഷിക മേഖലയുമായിട്ടു ബന്ധപ്പെട്ടു പ്രചോദനകരമായ നല്ല ചിത്രങ്ങള് ഞാൻ ഈ ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിൻ്റെയും പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം അതാണ് അതുപോലെതന്നെ മറ്റേത് ഒരിതെന്നു പറഞ്ഞുകഴിഞ്ഞാല് നല്ല സ്ഥലങ്ങള് പ്രത്യേകിച്ച് നമുക്കു യാത്ര പോകാൻ പറ്റിയ അല്ലെങ്കിൽ വിനോദത്തിനായിട്ട് കാരണം മനുഷ്യ ജീവിതത്തില് വിനോദം ഒരു ഇതാണ് പക്ഷെ മറ്റു വിനോദങ്ങളിലേക്കു പോവാതെ നമുക്കു കൗതുകകരമായ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ടു നമ്മുടെ വിനോദം ഒരറിവിൻ്റെയും അല്ലെങ്കിലൊരു പുതിയ കണ്ടത്തലിന്റെയും വേദിയാക്കിക്കൊണ്ടു മുന്നോട്ടു പോകുന്നതിനുവേണ്ടിയിട്ട് വിനോദ സ്ഥലങ്ങള് വിനോദ സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങള് ഞാനുള്ള ഫോട്ടോകള് പോസ്റ്റ് ചെയ്യാറുണ്ട് അതു പലപ്പോഴും മറ്റുള്ളവര് കണ്ടിട്ട് അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പോകുന്നവരുണ്ട് പോയതിനുശേഷം നല്ല സ്ഥലമായിരുന്നു ഈ ഒരു പുതിയ അനുഭവത്തിനു പിന്നീട് ഈ പോസ്റ്റുകളിൽ നിന്നു പിന്നീട് കമെന്റുകളും എന്നാ നിർദേശങ്ങളും നൽകുന്ന ആൾക്കാര് തീർച്ചയായിട്ടുമുണ്ട് അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ് പ്രായമായവരുടെ പ്രായമായവർക്കു കിട്ടുന്ന അവരുടെ മത്സരങ്ങളിലോ അല്ലെങ്കില് അവരെ പ്രത്യേക മേഖലയിലുള്ള അവർക്ക് അംഗീകാരത്തിൻ്റെ അ അറിവുകള് ഷെയര് ചെയ്യുക എന്നുള്ളത് അതും ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതിന്റെയും കാരണം എന്താണെന്നു ചോദിച്ചുകഴിഞ്ഞാല് പ്രായമായി എനിക്കിനി എന്തു ചെയ്യാൻ സാധിക്കുമെന്നു ചിന്തിച്ചുകൊണ്ടു നിർജ്ജീവരായിരിക്കുന്ന ആൾക്കാരെ സജീവമാക്കുക എന്നുള്ള ഒരിതിലാണ് അതുപോല തന്നെ വേറൊരു വത്യാസമെന്നുവച്ചാല് എനിക്കും സാധിക്കും അവനാകുമെങ്കിലെന്തുകൊണ്ട് എന്നുള്ള ഒരു ഇതു സമൂഹ മാധ്യമങ്ങളില് ലഭിക്കുക എന്നുള്ള ബോധ്യത്തിലാണു ഞാൻ ഇത്തരം കാര്യങ്ങള് ഇത്തരം അല്ലെങ്കിൽ ഇത്തരം ഫോട്ടോകള് ഷെയറെയ്യുന്നത്